കൊച്ചിലെ ഞാൻ അമ്മയുടെ ഫോൺലായിരുന്നു ഒത്തിരി ഇതുണ്ടായിരുന്നു ചുമ്മാതെ കാര്യങ്ങളും ഞെക്കി കുത്തിയൊക്കെ പഠിച്ച് കൊച്ചിലെ അത് എൻ്റെ സ്വന്തം ഫോണിലും കൂട്ടാൻ പറ്റില്ലല്ലോ പക്ഷേ ആ ഒരു സമയം തൊട്ടേ ആണ് ഞാൻ ഫോണുകളുപയോഗിക്കാനോ അല്ലെങ്കിൽ ഇത് ഞെക്കിയാൽ ഇതു വരുമെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വരുന്നത് എനിക്ക് തോന്നുന്നു കൊച്ചിലേ തൊട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ആ പ്രായം തൊട്ടേ ഞാനതിനോട് എക്സ്പോസായത കൊണ്ടാണെനിക്ക് ഇക്കാലത്ത് അത് നല്ല പോലെ കൈ വഴക്കം ഉള്ളതെന്നെനിക്ക് തോന്നുന്നു ഡിവൈസസ് യൂസ് ചെയ്യാനും ഫോൺ യൂസ് ചെയ്യാനോ ഒക്കെ കാര്യങ്ങൾ പൊതുവെ ഉള്ള അറിവിനേക്കാൾ കൂടുതലെനിക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് കാരണമെന്ന് പറയുവാനെനിക്കിത് ഒക്കേയുള്ളു കൊച്ചിലേ തൊട്ടുള്ള അതിനോടുള്ള ഒരു എക്സ്പോസായതാണ് എനിക്ക് അതിന് മെയിനായിട്ട് പറയാൻ കാരണം എൻ്റെ സ്വന്തം ഫോൺ എന്ന് വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് അതായത് ഒരാറു വർഷം മുമ്പ് അത് മോട്രോളോയേടെ ഒരു ഫോണായിരുന്നു മോട്രോളേടെ ഒരു സ്മാർട്ട് ഫോണായിരുന്നു ആ ഫോണ് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ നോക്കി തന്നെ വാങ്ങിച്ച ഒരു ഫോണാണ് നല്ല രീതിയിൽ നല്ല ഫീച്ചേഴ്സൊക്കെയുണ്ട് ഡിസ്പ്ളേയും കേമറയൊക്കെ നല്ലതായിട്ടുള്ളൊരു ഫോണായിരുന്നു ആ കാലത്ത് ഞാൻ പ്ലസ് ടുവും പത്താം ക്ലാസ്സൊക്കെ പഠിക്കുക അപ്പം കൂടുതലും ഗെയിമൊക്കെ കളിക്കാനൊക്കെ യൂസ് ചെയ്യുമായിരുന്നു അപ്പം നല്ല ഫോനോ പെർഫോം ചെയ്തൊരു ഫോണാണ് അതിൻ്റെ അത് ആക്ച്യുല്ലി എപ്പോഴാണ് വീണപ്പോൾ പൊട്ടിപ്പോയതാണ് അല്ലാതെ അതിനൊരു കേടുകളോ അങ്ങനെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതിന്റെതായ ഇങ്ങനെ കേടായി പോകുന്നത് അങ്ങനൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആകപ്പാടൊരുവട്ടം അതിൻ്റെ എന്തോ ഒരു മറ്റേ പാട്ടു കുത്തുന്ന അത് കുത്തണ്ട ആ പോർട്ട് ഒന്ന് കേടായി അപ്പോഴൊന്ന് മാറ്റുകയോ അല്ലാതെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു അതിന് പിന്നെ അതും അന്ന് പിന്നെ ഇപ്പോൾ എൻ്റെ കൈയിൽ ഇപ്പം ഞാൻ ഈ ഉപയോഗിച്ചോണ്ടിരിക്കുന്ന ഫോണെന്നു വെച്ചാൽ ഹൈക്കുവിൻ്റെ നീയോ സിക്സെന്ന മോഡലാണ് അതും ഇതും തമ്മിൽ നല്ല നല്ലതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് അതിൻറ്റേതായി ഹാർഡ് വെയറാവട്ടെ ചിപ്പാവട്ടെ അതിന് നല്ല ഇമ്പ്രൂവ്മെൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ലപോലെ ആ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അതിന് നാല് ജി ബി റാമോ ആറ് ജി ബി റാമോ മറ്റോ ആയിരുന്നു ഇതിന് പന്ത്രണ്ട് ജി ബി റാമാണുള്ളത് അതിൻറ്റേതായ പെർഫോമൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനല്ലെങ്കിൽ ഓരോ ആപ്പ്സ് പല ആപ്പ്സ് പഞ്ച് ചെയാനുള്ള ഇതിൻ്റെ ഇച്ചിരൂടെ എളുപ്പമായിട്ട് ഇത് ചെയ്യുന്നത് ഇതിൻ്റെ ചിപ്പിൻറ്റൊക്കെ ഇമ്പ്രൂവ്മെൻറ്റാണെന്നു തന്നെയാണ് വിശ്വസിക്കുന്നത് കേമറ വളരെ വളരെ വ്യത്യാസമുണ്ടതിന് വീഡിയോ ആവട്ടെ ഫോട്ടോസാവട്ടെ നല്ലപോലെ വ്യത്യാസമുണ്ട് ഞാൻ ഫോട്ടോഗ്രാഫിയിൽ എനിക്ക് നല്ല കമ്പം ഉള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ മൊബൈൽ ഫോണ് തന്നെ യൂസ് ചെയ്തത് ഫോട്ടോസ് നല്ല ഫോട്ടോസെടുക്കാൻ പറ്റുന്നെന്നു വെച്ചാൽ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അതീ ഫോണും കൊണ്ടെനിക്ക് സാധിക്കുന്നുണ്ട് ഇപ്പോഴും ഞാൻ ചെറിയ രീതിയിൽ ഗെയിംസൊക്കെ യൂസ് ചെയ്യാറുണ്ട് ടൈം പാസ് ടൈമിലൊക്കെ അത്യാവശ്യം പെർഫോമൻസ് ആവശ്യമുള്ള ഒരു ഗെയിംസാണേൽ ഈ ഫോണ് ഒരു കുഴപ്പവും ഇല്ലാതെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് അന്നു മുതൽ ഇന്നുവരെ ഞാൻ പൊതുവേ കണ്ടുവരുന്നൊരു മാറ്റം ബാട്ടറീസ് വളരെ വളരെ വളർന്നിട്ടുണ്ട് അതായത് നല്ല കപ്പാസിറ്റി കൂടുതൽ അതായത് കൂടുതൽ നേരം നിലനിൽക്കുന്ന മാത്രമല്ല കൂടുതൽ വേഗതയിൽ ചാർജ്ജ് തിരിച്ചെടുക്കാൻ അല്ലേ ചാർജ്ജ് ചെയ്യാനും ഇപ്പോഴത്തെ ഫോൺസിന് പറ്റുന്നുണ്ട് എൻ്റെ ഈ ഫോണിൽ എന്ന് വെച്ചാൽ അര മണിക്കൂർ മുക്കാൽ മണിക്കൂറും കൊണ്ടും ഫുൾ ചാർജ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ കാലത്ത് ഇത് ആലോചിക്കാൻ പോലും പറ്റാവുന്ന ഒരു കോൺസപ്റ്റല്ല എത്രയും പെട്ടന്ന് ഒരു ഫോൺ ഫുൾ ചാർജ്ജാവുക എന്ന് വെച്ചാൽ ഫുൾ ചാർജ്ജായിട്ട് തന്നെ ഒരു ദിവസം പൂർണമായിട്ടും ഒരു കുഴപ്പവും ഇല്ലാതെ നിൽക്കുക എന്നതും അന്ന് നോർമലായിട്ടുള്ള ഒരു കാര്യമല്ല സാധാരണ ഒരു പകുതി ദിവസാവുമ്പോഴത്തേക്ക് ബാറ്ററി ലോവായിട്ട് ചാർജ്ജ് ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ വരുമായിരുന്നു അതനുസരിച്ച് ഉപയോഗം കുറക്കണമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴെനിക്ക് ഫോണ് അത്രയും നിൽക്ക് നിലനിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതലായിട്ടും ഞാൻ ഉപയോഗിക്കുന്നു എന്ന് ഞാൻ കണ്ടുവരുന്നു അതിൻ്റെ ദോഷവശങ്ങളും ഇല്ലെന്നല്ല ഫോണുകൾക്കുണ്ടായ മികവുകളും വളർച്ചകളും ഗുണം ചെയ്യുന്നതു ഉണ്ട് ദോഷങ്ങളും വരുത്തിയിട്ടും ഉണ്ട് അത് ഫോണിനൊരു കുറ്റമായിട്ട് ഞാൻ കാണുന്നില്ല ഞാനും മറ്റാൾക്കാരും അത് ഫോണുകളുടെ ഉപയോഗത്തിൽ എടുക്കണം എടുക്കണ്ട നിയന്ത്രണങ്ങളും കാര്യങ്ങളും ചെയ്യാതെ പോയിട്ടുള്ളൊരു കുറവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്